ഞങ്ങളുടെ നാട്ടിൽ ഒക്കെ ശരീരം വർദ്ധിപ്പിക്കാനായിട്ട് എന്നിട്ട് കൊഴുപ്പുള്ള ഐറ്റംസ് ഒക്കെ തരും ഈ നെയ്യ് പിന്നെ ചപ്പാത്തി അങ്ങനെ കട്ടികൾ കട്ടികൾ അത് പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ തിന്നും ഈ തടി വെക്കാനുള്ള ടൈപ്പ് ഈ പഴങ്കഞ്ഞി പഴങ്കഞ്ഞിയും മോരും തൈരും ഒക്കെ കൂടി കൂട്ടി ഇട്ടൊരു പിടിയും പിടിച്ചൊരു മുളക് ചേർത്തിട്ടൊരു പിടിയാണ് പിടിച്ച് കഴിഞ്ഞാൽ പൊളി സ്വർഗം അത് അങ്ങനെ പിന്നെ മുട്ട പിന്നെ ബ്രെഡ് പോഷകാഹാരങ്ങൾ ഒക്കെ ചേർത്തിട്ട് കുടിക്കാനാണ് അടിപൊളി ഫാറ്റ് ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരീരമൊക്കെ നല്ല രീതിക്ക് ഒക്കെ കൊഴുത്ത് തടിച്ച് നിൽക്കും കഷായം കാര്യങ്ങളൊക്കെ കുടിച്ചാലും ഇത് പോലത്തെ തന്നെ ആ സെയിം തന്നെ ഇതിനെ ലേഹ്യം ലേഹ്യം പിന്നെ ഒരു ആ അമിതമായ ഭാരം ഇപ്പം കൂടിക്കഴിഞ്ഞാൽ അമിതമായാലും പ്രശ്നമാണ് അമിതം ആയില്ലെങ്കിലും പ്രശ്നമാണ് മനസ്സിലായോ ഏത് പിന്നെ അമിത ഭാരം കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഡെയിലി ആധികം ഫുഡ് കഴിച്ചാലും ഡെയിലി വ്യായാമം ചെയ്യേണ്ടി വരും അത് എന്തായാലും വേണ്ടതാണ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇടങ്ങേറായി പോകും മനസ്സിലായോ കാരണം ദാ കാരണം നമുക്ക് പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നൊരു ആക്ടിവിറ്റീസിനും ഓടാൻ പറ്റില്ല ഓടാൻ മീൻസ് ഓടാൻ മീൻസ് ഓടാനല്ല ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് മനസ്സിലായോ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോണാണ് അപ്പോൾ നമുക്ക് ഇപ്പം റെഡി ആയി പോകുമ്പോൾ നമ്മുടെ പാന്റ് അല്ലെങ്കിൽ ഡ്രസ്സ് ഒക്കെ നമുക്ക് സ്യൂട്ട് ആകില്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഓ ഇവന് എന്ത് തടിയാണെടാ ഓന് ഷോ എടാ അല്ല ഇവനിക്ക് തടി ഇല്ലെങ്കിൽ ഇവൻ എന്താണ് തടി ഇല്ലാത്തത് മെലിഞ്ഞാണല്ലോ തോട്ടിക്കോലി ആണല്ലോ അങ്ങനത്തെ ഒരു ടോക്ക് ഇട്ട് നമ്മളെ തളർത്തി വീഴ്ത്താൻ നോക്കും പിന്നെ എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കണം എക്സർസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മി പോകുന്നത് മാത്രമല്ല എക്സസൈസ് എന്ന് പറയുമ്പോൾ ഓടാൻ ചാടാൻ മറ്റേ പാർക്കിൽ പോയിട്ട് അവിടെ കുറച്ച് എക്സർസൈസ് ചെയ്യുക പിന്നെ ജിമ്മി പോകുന്നെങ്കിൽ ജിമ്മി പോകുക ഫുട്ബോള് കളിക്കുക ക്രിക്കറ്റ് കളിക്കുക വോളിബോള് കളിക്കുക അതൊക്കെ ഒരു എക്സർസൈസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിസ്കരിക്കുക നിസ്കാരം നിസ്കരിക്കുമ്പോഴും നമ്മുടെ ബോഡി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ബോഡി ഇങ്ങനെ അനങ്ങണത് ആണല്ലോ അതൊരു എക്സസൈസ് പോലെ ആണല്ലോ അതുപോലെ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെയൊക്കെ നല്ലതാണ് ഈ നിസ്കരിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഫുട്ബോള് കളിക്കുക ക്രിക്കറ്റ് കളിക്കുക ഓടുക നടക്കാം മിക്കപ്പോഴും നടക്കുന്നത് നല്ലത് പിന്നെ പറ്റുന്ന രീതിയ്ക്ക് എക്സർസൈസ് ചെയ്യുക ഇന്ന് എക്സർസൈസ് കഴിഞ്ഞാൽ ഇരുന്ന് നടന്നെങ്കിൽ നടന്ന് എങ്ങനേലും ഒക്കെ എക്സർസൈസ് ചെയ്യാം കാരണം ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ എന്നെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ തടി വെച്ചിരിക്കും എന്ന് വെച്ച് അപ്പം എനിക്ക് തടി ഉണ്ടെന്നല്ല ഒരുവിധം ഒക്കെ വയറ് ചാടിയിരിക്കയാണ് വയറ് ചാടി വന്ന് കഴിഞ്ഞാൽ നാണക്കേടാണ് നാണക്കേടാണ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല സ്റ്റീയറിങ്ങമേക്കും നമ്മുടെ വയറ് തട്ടും വയറ് തട്ടിയെന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുക ഉള്ളൂ പിന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എവിടെയും പോയിരിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തടിയുള്ളത് പിന്നെ തടി കുറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് കളിയാക്കൽ ഏറ്റ് നമ്മൾ മരിക്കും അതും ബുദ്ധിമുട്ടാണ് ഇതും ബുദ്ധിമുട്ടാണ് അപ്പോൾ തടി കൂട്ടാനായിട്ട് നമ്മുടെ നാട്ടിൽ പഴയ ഇത് വെച്ച് നോക്കുമ്പോൾ പഴങ്കഞ്ഞി പൊറോട്ട ചപ്പാത്തി നല്ല നല്ല പോഷകാഹാരങ്ങൾ പോഷകാഹാരങ്ങൾ കഴിക്കും നല്ല കട്ടിയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കും ഈ ചിക്കനൊക്കെൽ പൊരിച്ച് മറിച്ച് തിരിച്ചതൊക്കെ ഇട്ട് കഴിക്കുമ്പം അത് എൻ്റെ പൊന്നോ സ്വർഗം